നഗരത്തെത്തിലെയും ഗ്രാമത്തിലെയും സ്കൂള് തമ്മിൽ എന്താ വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ നഗരങ്ങളിൽ എന്ന് പറഞ്ഞാൽ അവിടെ വെൽ പ്ലാനിഡ് ആയിരിക്കും എന്നാൽ എല്ലാ സ്റ്റുഡൻസിനും അവർക്ക് മെച്ചപ്പെട്ട ഒരു വിദ്യാഭ്യാസം തന്നെയായിരിക്കും കൊടുക്കുക അവർക്ക് ഒന്നിനും ഫുഡിനാണെങ്കിലും ബുക്സിനാണെങ്കിലും ഒന്നിനും അവർക്ക് പുറത്ത് പോയിട്ട് വാങ്ങിക്കേണ്ട ആ ഒരു വ്യത്യാസം വരുന്നില്ല പിന്നെ നഗരത്തിൽ ആകുമ്പോൾ ക്യാഷ് കൊടുത്തിട്ടായിരിക്കും എല്ലാ സെറ്റിൽമെന്റും നടത്തുക ഇപ്പോൾ ഗ്രാമത്തിലോട്ട് വരുകയാണ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഗവൺമെൻറ് സ്കൂളുകളൊക്കെ ഉള്ളത് കൊണ്ട് ഞങ്ങൾക്ക് ക്യാഷ് അടച്ചിട്ട് പഠിക്കേണ്ട ആവശ്യം വരുന്നില്ല അതേപോലെ തന്നെ ഗവൺമെൻറ് സ്കൂളിൽ ഗ്രാമത്തിലെ ഗവൺമെൻറ് സ്കൂളുകൾ എന്താ തമ്മിൽ എന്ത് വ്യത്യാസം എന്ന് ചോദിച്ച് വന്നാൽ അവിടെ ചിലപ്പോൾ ഓടിട്ട സ്കുളുകളൊക്കെ ആയിരിക്കും ഉണ്ടാവുക ചിലപ്പോൾ പെട്ടന്ന് ഒരു മഴയൊക്കെ വന്നു പറഞ്ഞാൽ ഓടൊക്കെ പൊട്ടി താഴെ വീഴാനുള്ള അവസ്ഥയൊക്കെ വരാറുണ്ട് അപ്പോൾ അതിനു വേണ്ട നടപടികളൊക്കെ എടുത്തിട്ടില്ല എന്നാണ് കൂടുതലായിട്ട് പറയാൻ ഉള്ളത് എന്ന് പറയാൻ ഉള്ളത് ഇവ തമ്മിൽ വ്യത്യാസം എന്ന് പറഞ്ഞാൽ കൂടുതൽ നല്ലത് ഏറ്റവും എഡ്യൂക്കേഷൻ കിട്ടണമെന്ന് വിചാരിക്കുന്ന വിചാരിക്കുന്നുണ്ട് എങ്കിൽ അത് നഗരത്തിൽ പോയി തന്നെയാണ് പഠിക്കണം ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ നഗരത്തിൽ പോയി തന്നെയാണ് പഠിക്കണം എന്നുള്ളതാണ് മെയിനായിട്ടുള്ള കാര്യം